കിടാവ് ജനിച്ച ഉടനെ അതിൻ്റെ മൂക്കു പിഴിയുകയും അതിനെ നന്നായിട്ട് തുടച്ചെടുക്കുകയും ചെയ്യും എന്നിട്ട് അതിൻ്റെ അമ്മയുടെ പിന്നെ അകിടിൽ അതിനെ പാൽ കുടിപ്പിക്കാൻ വേണ്ടിയിട്ട് പിടിച്ചു കൊടുക്കുകയും പിന്നെ അമ്മക്കു മാവില കൊടു ആഹാരമായിട്ട് കൊടുക്കുകയും ചെയ്യും പിന്നെ അതിനെ ഇത് കുറച്ചു കുറച്ചു നേരം കഴിയുമ്പോഴേക്കും അതിനെ നന്നായിട്ട് അതിനെ പിന്നെയും പാല് കൊടുക്കാനായിട്ട് പിടിച്ചു കൊടുക്കും നല്ല അതിനു തണുക്കാത്ത രീതിയിൽ അതിനെ നല്ല വൃത്തിയുള്ള ഭാഗത്തു അതിനെ കിടത്തുകയും ചെയ്യും പിറ്റേദിവസം ആകുമ്പോഴേക്കും അത് നന്നായിട്ട് തനിയെ പാല് കുടിക്കുകയും തുള്ളികളിക്കുകയും ചെയ്യും പിന്നെ തുടർന്ന് ഏഴു ദിവസം കഴിഞ്ഞിട്ട് അതിനെ കുളിപ്പിക്കുകയും ആ അത് നോർമലായിട്ട് നല്ല രീതിയിൽ തുള്ളികളിക്കാൻ തുടങ്ങുകയും ചെയ്യും